നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടേ ഇപ്പം നിത്യ ജീവിതത്തിൽ വെള്ളം ആവിശ്യമുള്ള പിന്നെ അതായത് വെള്ളമാവശ്യമുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാം ഇപ്പം നമുക്ക് കുടിക്കാൻ വെള്ളം വേണം അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഒന്ന് ബാത് റൂമിൽ പോകണം അതായത് കക്കൂസിൽ പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം ആ ഇപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണം അപ്പം രാവിലെയിപ്പം കൂടുതൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും രാവിലെ എണീച്ച് കാപ്പി കുടിക്കുന്നവർ ആയിരിക്കും അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ ഉടൻ വെള്ളം കുടിക്കുന്നവരായിരിക്കും ഇപ്പം അതിൽ നമുക്ക് വെള്ളം വേണം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ നമ്മൾ പാചകം ചെയ്യുന്നോ അതിനൊക്കെ നമുക്ക് വെള്ളം വേണം വെളളം ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കില്ല ഇപ്പം നമുക്ക് പാചകം ചെയ്യുന്നതിന് നമുക്കിപ്പോൾ വെള്ളം വേണ്ടെങ്കിലും നമുക്കത് ഇപ്പോൾ പച്ചക്കറി എന്തെങ്കിലും കഴുകാൻ നമുക്ക് വെള്ളം വേണ്ടിവരും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുളിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം അതുപോലെ നമുക്ക് കുടിക്കണം എങ്കിൽ വെള്ളം വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വീട് ഇപ്പോൾ തുടയ്ക്കാൻ തുടച്ച് വൃത്തിയാക്കാണം അതിന് വേണം വെള്ളം നമുക്കിപ്പോൾ വണ്ടിയുണ്ട് വണ്ടി കഴുകണം അതിന് വേണം വെള്ളം വെള്ളം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ജീവിതം തന്നെയില്ല